ഏറെ പുരോഗമന ചിന്തകളും പുരോഗം പുരോഗമന വാദികളുമായ ആളുകൾ ജീവിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്നാൽ എന്തുകൊണ്ടും ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ഒട്ടും പുരോഗമിച്ചിട്ടില്ല കാരണം നമുക്ക് വേണ്ട അത്യാവശ്യം അത്യന്തപേക്ഷിതമായിട്ടുള്ള യാതൊരു വിധ വിദ്യാഭ്യാസ കാര്യങ്ങളും ഇന്ന് ഇന്ത്യയിൽ ഇല്ല ഫീസടക്കാത്തതിൻ്റെ പേരിലെല്ലാം കുട്ടികളെ നിലത്തിരുത്തി പരീക്ഷ എഴുതിപ്പിക്കുന്നതും മതത്തിൻ്റെ പേരിൽ വർഗ്ഗീയത സൃഷ്ടിക്കുന്നതുമായ വാർത്തകളെല്ലാം നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് വേണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ നയങ്ങൾപോലും ഇന്ന് ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവന്നിട്ടില്ല നിയമങ്ങൾ പഠിപ്പിക്കുക എന്ന് പോൽ എന്നത് പോലുള്ള നിസ്സാരമായ കാര്യങ്ങൾപ്പോലും ഇന്ത്യൻ പാഠ്യ പദ്ധതിയിൽ ഇന്നും ഉൾകൊള്ളിച്ചിട്ടില്ല കാരണം നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രജ ഇന്നും രാജാവ് പ്രജ എന്ന രീതിയിലാണല്ലോ നമ്മുടെ ജനാതിപത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പ്രജ പുരുഷനായി യുവാവായി ചോദ്യം ചോദിക്കുന്നവനായി മാറും ആ ഒരു ഒറ്റ കാരണം കൊണ്ട് നിയമങ്ങൾ പഠിപ്പിക്കുക എന്നത് പോലുള്ള നിസ്സാരമായ അത്യന്താപേക്ഷിതമായ കാര്യങ്ങൾ ഇന്നും ഇന്ത്യൻ പാഠ്യ പാഠ്യ പദ്ധതിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള യാതൊന്നും തന്നെ നമ്മുടെ പാഠ്യ പദ്ധതിയിൽ ഇന്ന് ഇല്ല എന്നതാണ് സത്യം അത് നേരിടുന്ന പ്രധാന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്നത് വെറും പുസ്തകപുഴുക്കളെപോലെ ഒരുപാട് ആളുകളെ ഇന്നു വാർത്തെടുക്കുക എന്നല്ലാതെ വേറെ യാതൊരു വിധ പ്രയോജനവും ഇല്ലാതെ കുറച്ചുപേരെ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇന്ത്യയിലേക്ക് വെറുതെ രാജ്യങ്ങളിലേക്ക് വെറുതെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടു കൊണ്ടിരിക്കുന്നത് ആയതിനാൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എത്രയും പെട്ടെന്ന് മാറ്റ ഭേദഗതികൾ വരുത്തി അതെ പുരോഗമന ചിന്തകൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ പുരോഗമന ആശയങ്ങൾപ്പോലെ അതുകൊണ്ടു വരണം എന്നുള്ളത് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക